ഫാഷനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഫാഷൻ എന്നു പറയുന്നത് ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഫാഷൻ ലോകമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ലോകം ഇന്ത്യയുടെ ഫാഷനെക്കുറിച്ച് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ എമ്പാടും ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള കൾച്ചറുകൾ കാര്യങ്ങൾ ഒക്കെ അടങ്ങിയാണ് ഓരോ രീതികൾക്കും ഓരോ സംസ്കാരത്തിനും വ്യത്യാസം വരുന്നത് അതനുസരിച്ച് ഇന്ത്യയിലേക്ക് അത് കടന്നുവന്നിട്ടുണ്ട് നല്ല രീതിയ്ക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരു ഒട്ടും എന്താ പറയുക ഒട്ടും ഒരു താഴ്മ അതിനു വന്നിട്ടില്ല ഒരുപാട് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വസ്ത്ര രീതികൾ എന്നു പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പണ്ടത്തെ കാലങ്ങളിൽ മാറു മറയ്ക്കാൻ വരെ സമരങ്ങളൊക്കെ നടത്തിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലതുപോലും വേണ്ടായെന്നുള്ള രീതിയിലേക്ക് വരുന്ന തരത്തിൽ എന്താ വസ്ത്രധാരണ രീതികൾ തന്നെ മാറിയിട്ടുണ്ട് ചാന്നാർ സമരങ്ങളൊക്കെ നമുക്കറിയാം വസ്ത്രം മാറു മറയ്ക്കാൻ വേണ്ടിയിട്ട് അന്ന് അനുവാദമില്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി ശക്തമായിട്ട് പോരാടിയിരുന്ന ആളുകൾ തന്നെ സമൂഹത്തിലുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാം ഇന്നിപ്പോൾ തുണി ഇട്ടാലായി ഇട്ടില്ലെങ്കിൽ ആയി അതുപോലെ ഫാഷൻ രീതികൾ ഒരുപാട് സംസ്കാര വ്യത്യാസങ്ങളൊക്ക വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വസ്ത്രധാരണ രീതികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പഴയ കാലമായിരുന്നു ഇച്ചിരികൂടെ ഭേദം എന്നു നമുക്ക് പറയാനായിട്ട് പറ്റും പിന്നെ മാത്രമല്ല അപൂർവ്വങ്ങളിൽ അപൂർവ്വമായിട്ട് ഉള്ള ആളുകൾ മാത്രമേ ഈ വസ്ത്രധാരണ രീതികളിലും അതുപോലെ മറ്റു ഫാഷൻ രീതികളിലുമൊക്കെ പണ്ടത്തെ ഒരു ശൈലി കീപ്പപ്പ് ചെയ്ത് പോവുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഒരുപാട് വ്യത്യാസം വന്നിരിക്കുകയാണ് പിന്നെ ഫാഷനിലും നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് അത് ഒരു ഒരു രീതിയ്ക്കും മാറ്റം വന്നിട്ടില്ല എന്ന് കറക്റ്റ് പറയാനായിട്ട് പറ്റില്ല ഒരുപാടു രീതികളിൽ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് പാശ്ചാത്യ വസ്ത്രധാരണ രീതികൾ ഇന്ത്യൻ വസ്ത്ര രീതികളെ സ്വാധീനിച്ചത് എന്നു ചോദിച്ചാൽ ഈ പറഞ്ഞതുപോലെതന്നെ മേലെ പറഞ്ഞതുപോലെ ഈ ഒരുപാട് കൺവെർഷൻസ് അതായത് ഈ പാശ്ചാത്യ രീതികൾ അവിടുത്തെ ആളുകളുടെ ശൈലികൾ സംസ്കാരങ്ങൾ ഇതൊക്കെ ഇന്ത്യയെ പല രീതിയിൽ സ്വാധീനിക്കാൻ തുടങ്ങി അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ പല രാജ്യങ്ങളിലേക്കൊക്കെ പോയി താമസിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് ശരിക്കും ഇത് ആ ഒരു സംസ്കാര രീതികൾ ആപ്റ്റബിളായിട്ട് വന്നു അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ അവിടെ നിന്നുള്ളവർ നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഇവിടുത്തെ രീതികളിൽ മാറ്റം വരുത്തി അല്ലെങ്കിൽ ഇവിടെയുള്ളവർ അതു കണ്ടുപിടിച്ച് ഇങ്ങനെയൊക്കെയാണ് കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നത് പിന്നെ ഏതു തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും പറയും ഞാനിപ്പോഴും സിസ്റ്ററാണ് സിസ്റ്ററാവുന്നതിനുമുമ്പ് വസ്ത്രധാരണ രീതികളൊക്കെ അത്യാവശ്യം മാന്യമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ധരിച്ചിരുന്ന ഡ്രസ്സുകളൊക്കെ എനിക്ക് സ്യൂട്ടബിളായിരുന്നു അതൊക്കെയാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പാവാടയും ബ്ലൗസും അല്ലെങ്കിൽ ചുരിദാർ പിന്നെ വേറൊരു കാര്യം ഇത് നമ്മുടെ സംസ്കാര രീതി അനുസരിച്ച് കേരളത്തിൻ്റെ രീതി അനുസരിച്ച് ഇതൊക്കെ പഴയ വസ്ത്രധാരണ രീതികളായിരുന്നു പക്ഷേ

ഇപ്പോൾ അതും മാറി വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു ജീൻസും ടോപ്പൊക്കെ ഇട്ടാലായി മേക്കപ്പൊക്ക കൂടുതൽ ഇട്ടുകൊണ്ട് നടക്കുന്നു ഇതിനൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല അത് കുറേക്കൂടി ആപ്റ്റബ്ളായിട്ട് ഫാഷൻ രീതികളിൽ ചേഞ്ചസ് വരുത്തണം പക്ഷെ പഴയ കാര്യങ്ങളെക്കൂടെ അതൊന്നും നഷ്ടപ്പെടാതെ പഴയ രീതികളിൽക്കൂടി ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ പുതിയ ഫാഷൻ രീതികൾ മാറ്റുക എന്നുള്ളതാണ് മെയിനായിട്ടും പറയാനുള്ളത്